ഹലോ ഞങ്ങൾ ഇവിടെ പാലക്കാടിന്ന് വരുന്നതാണ് അപ്പം നമ്മൾ കോഴിക്കോട് ഒരു അഞ്ച് ദിവസത്തേക്ക് ഒരു ട്രിപ്പ് വരുന്നതാണ് അപ്പം അവിടെ കാണാൻ എതൊക്കെയാണ് സ്ഥലങ്ങൾ ഒക്കെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു

ആണോ ആ ആ അപ്പം നമുക്ക് അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ആയിരുന്നു അപ്പം നമുക്ക് ഫുഡ്ഡ് അക്കോമഡേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ തന്നെ ചെയ്ത് തരോ

നമുക്ക് റിസോർട്ട് കാര്യങ്ങൾ നിങ്ങൾ അതായത് നമുക്ക് താമസം പിന്ന ഫുഡ്ഡും കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ തന്നെ ചെയ്ത് തരണം നമുക്ക് വലിയ പിടിത്തം ഒന്നും ഇല്ല ഉള്ളത് അവിടെ ഏതാ നല്ല ഇത് സ്ഥലങ്ങളെന്നൊക്കെ അപ്പം ഞങ്ങൾക്ക് ഒരു അഞ്ച് ദിവസത്തേക്ക് വേണ്ടി ആയിരുന്നു നമുക്ക് കുട്ടികളും അതെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നത് അപ്പം അതിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ആ റിസോർട്ട് കാര്യങ്ങൾ ഒന്നും വേണ്ട നോർമൽ ആയിട്ട് എന്തെങ്കിലും മതി ആ മതി മതി ഓവർ റേറ്റ് ഒന്നും വേണ്ട കേട്ടോ ഒരു നോർമൽ ആയിട്ട് അപ്പം ഞങ്ങൾ വരുന്നത് എപ്പോഴാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പതിനാറാം തീയ്യതി വൈകുന്നേരം ഇവിടുന്ന് പുറപ്പെടും അപ്പം ഞങ്ങൾക്ക് അതായത് അതുപോലെ നിങ്ങൾക്കും വണ്ടി സൗകര്യം നിങ്ങൾ തന്നെ ആക്കിത്തരുമോ ഞങ്ങൾ ട്രെയിനിലാണ് വരുന്നത് ആ അപ്പം വണ്ടിന്റെ സൗകര്യം ഫുഡ്ഡ് താമസം ആ ഓക്കെ ആ ഓക്കെ ഫുഡ്ഡ് താമസം ഒക്കെ നിങ്ങൾ തന്നെ ചെയ്ത് തരണോട്ടോ നമ്മൾ അഞ്ച് ദിവസം അഞ്ച് ദിവസം കറക്റ്റ് അഞ്ച് ദിവസം ഞങ്ങൾ അവിടെ വരുന്ന നൈറ്റ് തൊട്ടുള്ള എല്ലാ ഫുഡ്ഡ് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ തന്നെ ചെയ്ത് തരണം എത്രയാണ് എമൗണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്ത് തരാം ആ ഓക്കെ ഓക്കെ ആ ഓക്കെ